ഞങ്ങളുടെ നാട്ടിൽ സാധാരണയായിട്ട് മൂന്ന് രീതിയിൽ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത് ഒന്ന് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മൂന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ ഗതിയിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ്സ് എന്ന് പറയുന്നത് നാമ മാത്രമാണ് അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നതാണ് ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമ്പന്ധിച്ചെടുത്തോളം അതിൻ്റെ അദ്ധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെ ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് സർക്കാർ തന്നെയാണ് അതുകൊണ്ട് ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ തോതിൽ ഉള്ള ഫീസ്കളൊന്നുമില്ല പീ റ്റി എ ഫണ്ട് എന്നൊക്കെ ഉള്ള നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മെയിൻറ്റനൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ തോതിൽ ഉള്ള ഫണ്ട് കളക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ വിദ്യാഭ്യാസം ആയിട്ട് ബന്ധപ്പെട്ടങ്ങനെ വലിയ ഫീസ്സ് ഈക്കാര്യത്തിൽ ഉണ്ടാകാറില്ല തുടർന്ന് വരുന്നതാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സീ ബീ എസ് ഇ ഐ സീ എസ് ഇ സിലബസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സാധാരണ ഗതിയിൽ സാമ്പത്തികമായി ഭദ്രത ഉള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അങ്ങനെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ ഇപ്പോൾ നിറയെ കാണാറുണ്ട് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഫീസ്സ് കൊടുത്താണ് പഠിക്കുന്നത് മുൻപ് ഇപ്പോൾ ക്രമാതീതമായിട്ട് ആ ഫീസിലൊക്കെ വർധനവ് ഉണ്ടാകുന്നുണ്ട് കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന തൊഴിൽ എടുക്കുന്ന ആളുകൾക്ക് നിശ്ചിത വേതനം കൊടുക്കണം എന്ന് നിർബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാലറിയും അതുപോലുള്ള മറ്റ് ചിലവൂടെല്ലാം പരിഗണച്ച് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളുടെ ഫീസ്സ് എല്ലാ വർഷവും ഓരോ അക്കാഡമിക്ക് ഇയർലും വർധിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അത് അനുസരിച്ച് ഇപ്പം കേരളത്തിൽ ഫീസ്സ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ കുട്ടികൾ അല്ല ഒന്ന്കിൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരോ അല്ലെങ്കിൽ കാർഷിക മേഘലയിൽ നിന്ന് അത്പോലുള്ള ഇടത്തെന്ന് നിറയെ വരുമാനം ഉള്ള കുട്ടികളാണ് സാധാരണ ഗതിയിൽ ഇന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ വിഭാഗം ആളുകളും അവരുടെ കുട്ടികളെ ഇത്തരം സ്കൂളുകളിലേക്ക് ആണ് പറഞ്ഞ് വിടുന്നത് സർക്കാർ സ്കൂളുകൾ കേരളത്തിൻ്റെ ഒരു നിലവാരത്തിന് അനുസരിച്ച് പറയുമ്പോൾ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ പ്രശംസനീയമാണ് സ്ലാഹനീയമാണ് അത്പോലെ തന്നെയാണ് ഏയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്കൊണ്ട് തന്നെ ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടുത്ത മത്സരം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇവിടെ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്വാട്ടർലി ഫീസ്സ് ഈടാക്കുന്ന സാഹചര്യം ആണുള്ളത് മൂന്ന് മാസം കൂടുമ്പോൾ ഫീസടയ്ക്കണം അങ്ങനെ പിന്നെ പരീഷയ്ക്ക് വേറേ ഫീസൊണ്ടാവും അത്പോലെ സ്കൂള്കളുടെ മേയ്റ്റനൻസിനും മറ്റ് പരിപാടികൾക്കും എല്ലാം ഫീസ്സ് വാങ്ങിക്കും പക്ഷേ ഇതെല്ലാം കൊടുക്കാൻ തയ്യറായിട്ടുള്ള ഒരു ജനവിഭാഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് അത്കൊണ്ട് അവരെ സമ്പന്ധിച്ചിടത്തോളം അത് ഒരു സാമ്പത്തികമായ വലിയ ബാധ്യതയായിട്ടവർ പരിഗണിക്കാറും ഇല്ല അപ്പം അത്തരം സ്കൂള്കൾ നിറയേ ഉള്ള ഒരു സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം ആണ് കേരളം പക്ഷേ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം സ്കൂള്കൾടെ എണ്ണം പൊതുവേ കുറവായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്കൂള്കളും ഏയ്ഡഡ് സ്കൂള്കളും ചെയ്യുന്ന സംഭാവനകൾ വളരെ പ്രശംസനീയമാണ് അത്കൊണ്ട് തന്നെ കുട്ടികളെ സമ്പന്ധിച്ചിടത്തോളം ഫീസിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല